ഹലോ എന്തൊക്കെയാണ് വിവരങ്ങള് സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോള് ഞാൻ വിളിച്ചതെന്താണെന്ന് വെച്ചാല് ഞാന് വിരമിക്കുകയാണല്ലോ അപ്പോള് ഇത്രയും വർഷത്തെ സർവീസ് കഴിഞ്ഞിട്ട് വിരമിക്കുമ്പോള് ഭയങ്കരം സന്തോഷവും ഇതൊക്കെയുണ്ട് ങേ അപ്പോള് ഞാൻ അതിൻ്റെ കൂടെ ഒരു വലിയ കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട് അതായത് ഈ വരുന്ന രണ്ടാഴ്ചയ്ക്കുള്ളിലായിട്ട് തന്നെ ഒരു യാത്ര പുറപ്പെടാനുള്ള ഉദ്ദേശമുണ്ട് യാത്രയെന്ന് പറയുമ്പോള് ലോകങ്ങള് ചുറ്റിക്കാണുക ലോകത്തെ പ്രശസ്തമായിട്ടുള്ള സ്ഥലങ്ങളും നഗരങ്ങളുമൊക്കെ പോയിട്ട് കാണുക അങ്ങനെയൊക്കെയുള്ള ഉദ്ദേശമാണുള്ളത് അപ്പോള് അതിനുവേണ്ടി പാസ്പോർട്ട് ഒന്ന് പുതുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു പാസ്പോർട്ട് പുതുക്കാന് നിങ്ങളൊന്ന് എനിക്കറിയാം നിങ്ങള്ക്ക് കുറേ കണക്ഷനും ഇതുമൊക്കെയുണ്ടെന്നുള്ളത് അപ്പോള് നിങ്ങളൊന്ന് ഹെല്പ്പ് ചെയ്തുകഴിഞ്ഞാല് വലിയ ഉപകാരമാകും കാരണം എനിക്കെത്രയും പെട്ടെന്ന് യാത്ര തുടങ്ങണമെന്നുണ്ട് കാരണം ഇത്രയും കാലത്തെ ഈ തിരക്കൊക്കെയൊന്ന് കഴിഞ്ഞ് എത്രയും പെട്ടെന്നുതന്നെ യാത്ര തുടങ്ങി പരമാവധി രാജ്യങ്ങളൊക്കെ കണ്ട് ഒരു ആത്മസംതൃപ്തിയോടുകൂടി തിരിച്ചുവരിക എന്നും ഓർത്തിരിക്കാൻ പറ്റിയ ഓർമകള് സമ്പാദിക്കുക അങ്ങനെയൊക്കെയുള്ള ലക്ഷ്യമാണ് മനസ്സിലുള്ളത് അപ്പോള് അതിനുവേണ്ടി പാസ്പോർട്ട് പുതുക്കണം അപ്പോള് അത് പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാല് അത്രയും സുഖമാകും അതുകൊണ്ടാണ് നിങ്ങളെത്തന്നെ ഞാന് വിളിച്ചത് കാരണം നിങ്ങൾക്കാണ് അതിന് പറ്റുകയെന്ന് കൂടുതലായിട്ട് എനിക്കറിയാവുന്നത് കൊണ്ടാണ് നിങ്ങള്ക്ക് ഞാന് ഈ യാത്രയെക്കുറിച്ച് പറയുമ്പോള് അതിൻ്റെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന് മനസിലാവുകയും ചെയ്യും കാരണം ഇത്രയും വർഷമായിട്ട് ഞാനങ്ങനെ യാത്ര പോവുകയൊന്നും ചെയ്തിട്ടില്ല ഫുള് സർവീസിനായിട്ട് മാറ്റിവെച്ചതായിരുന്നു അപ്പോള് പോകണം അപ്പം നിങ്ങളതിന് സഹായിക്കണം നമുക്കെല്ലാം പെട്ടെന്നുതന്നെ ചെയ്യണം ഓക്കെ താങ്ക് യൂ